ഞാൻ വാങ്ങിയിട്ടുള്ളതിൽ വച്ചിട്ട് എനിക്ക് ഏറ്റവും മോശമായിട്ട് തോന്നിയിട്ടുള്ളൊരു പ്രൊഡക്ടാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഷാംപൂ അത് തേച്ചതിൽപ്പിന്നെ മുടിക്ക് എന്താണ് വല്ലാണ്ട് ഊരിപ്പോവുകയും പിന്നെ പൊട്ടിപ്പൊട്ടിപ്പൊട്ടി പോവുകയാണ് അതാണ് എനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നിട്ടുള്ള പ്രൊഡക്ടാണ്